അതെ ഇത് ആരായിരുന്നു സംസാരിക്കുന്നേ ആ ചേച്ചിക്ക് ഏതു കേക്കായിരുന്നു വേണ്ടതെന്നു പറഞ്ഞുകഴിഞ്ഞാലത് ഞങ്ങള് അതിനനുസരിച്ചു ചെയ്യുമായിരുന്നു ആ തീർച്ചയായിട്ടും ഞങ്ങളങ്ങനെ ചെയ്തു തരാം ചേച്ചിക്ക് ചേച്ചിയുടെ അനിയൻ ഏത് കാർട്ടൂൺ ക്യാരക്റ്ററിനെ ആണ് കുറച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതൊക്കെ ഒന്നു പറഞ്ഞുതരാമോ അത് ൻ്റായിട്ട് ചെയ്യണോ അതോ നമ്മള് പ്രിൻ്റഡായിട്ട് കേക്കില് വച്ചാല് മതിയോ അങ്ങനെ എന്തേലും എത്ര കിലോ ആയിരുന്നു ചേച്ചിക്കു വേണ്ടത് കട്ട് പീസെന്നു പറയുമ്പോള് ചതുരത്തിലാണോ അതോ റൌണ്ട് ഓക്കെ ആ ഉറപ്പായിട്ടും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ചേച്ചിക്ക് ഇപ്പോള് കേക്കിലേതു കളറാണു വേണ്ടത് അങ്ങനെ എന്തേലും ഓപ്ഷൻസുണ്ടോ അ ആ ടോം ആൻ ജെറിയിലെ ടോം ആൻ ജെറിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതായിരുന്നു എന്ന് പറഞ്ഞേ

ആ

റേറ്റ് ഇപ്പോള് ഞങ്ങള്ക്കു പറയാൻ കഴിയില്ല കാരണം എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ചേച്ചീനെ പിന്നെ അറിയിച്ചാലും മതിയോ ആ ഇത് എന്നത്തേക്കായിരുന്നു വേണ്ടത് ആ ഉച്ച ഉച്ചയ്ക്കു കറക്റ്റ് സമയമൊന്നു പറയാമോ ആ ഹോം ഡെലിവറി ഉണ്ട് പക്ഷേ നമ്മള് കിലോ മീറ്റർ അനുസരിച്ച് നമ്മള് ചാർജ് ഈടാക്കുന്നതായിരിക്കും ആ ആ ഓക്കെ ഫൈൻ ആ തീർച്ചയായിട്ടും ഞങ്ങളവിടെ എത്തിച്ചു തന്നേക്കാം പിന്നെ ചേച്ചിയുടെ വീട് എവിടെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഡീറ്റെയിൽസൊന്നു പറഞ്ഞുതന്നാല് മതി ആ ഓക്കെ പിന്നെ എന്തെങ്കിലും കപ്പ് കേക്കല്ലാതെ വേറെയെന്തെങ്കിലും വേണോ

ആ ചേച്ചി പറഞ്ഞതുപോലെ എല്ലാം ഞങ്ങള് നന്നായിട്ട് ചെയ്തുതരാന് ശ്രമിക്കാം ആ ശരി